എറണാകുളം ജില്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലൊന്നാണ് മധ്യകേരളത്തിൽ സ്ഥിതിചെയ്യുന്ന ഈ ജില്ല കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നു ഋഷിനാഗക്കുളം എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത് രണ്ടാമത്തെ വലിയ നഗരവും ഏറ്റവും വലിയ വ്യവസായിക മേഖലയുമായ കൊച്ചി ചരിത്ര പരമായ പ്രാധാന്യമുള്ള മട്ടാഞ്ചേരി തൃപ്പൂണിത്തുറ എന്നീ പ്രദേശങ്ങളുടെ സാന്നിധ്യം ഈ ജില്ലയെ പ്രാധാന്യമേറിയതാക്കുന്നു പെരുമ്പാവൂർ മരവ്യവസായത്തിന് പേര് കേട്ട സ്ഥലമാണ് ഈ പ്രദേശത്ത് നാന്നൂറോളം പ്ലൈവുഡ് വ്യവസായ യൂണിറ്റുകൾ പ്രവര്ത്തിക്കുന്നു കാക്കനാട്ടെ ഇൻഫൊപാർക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ഐ ടി പാർക്കാണ് കേരളം സംസ്ഥാനമായി നിലവിൽവന്ന ശേഷം പഴയ നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ കൊച്ചി എന്നിവയിലെ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഏപ്രിൽ ഒന്നിനാണ് എറണാകുളം ജില്ല രൂപീകൃതമായത് തിരുവിതാംകൂർ രാജ്യത്ത് നിന്നുള്ള പ്രദേശങ്ങളാണ് പ്രധാനമായും ജില്ലക്ക് കീഴിൽ വന്നത് ഇടുക്കി ജില്ല രൂപീകൃതമാകും മുമ്പ് തൊടുപുഴ താലൂക്കും എറണാകുളം ജില്ലാ പരിധിയിലായിരുന്നു കടലിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ പുരാതനക്കാലം മുതലേ ഋഷിനാഗക്കുളം എന്നറിയപ്പെടുന്ന ജില്ലയിലെ മിക്ക പ്രദേശങ്ങളും വാണിജ്യപരമായി പ്രശസ്തി ആർജിച്ചിരുന്നു കൊച്ചി തുറമുഖം വഴി അറബികളും ചൈനക്കാരും ഡച്ചുകാരും പോർഗീസ്കാരും ഈ പ്രദേശങ്ങളുമായി വാണിജ്യബന്ധം സ്ഥാപിച്ചിരുന്നു കൊച്ചി നഗരത്തിൽ സ്ഥിതിചെയ്യുന്ന ജൂതപ്പള്ളി യൂദാസ്സിനകൊ ഡച്ചുകൊട്ടാരം എന്നിവ എറണാകുളത്തിൻ്റെ ഗതകാല പ്രൗഢിക്ക് ദൃഷ്ടാന്തങ്ങളാണ് പടിഞ്ഞാറ് അറബിക്കടൽ വടക്ക് തൃശ്ശൂര് കിഴക്ക് ഇടുക്കി ജില്ല തെക്ക് കോട്ടയം ആലപ്പുഴ ജില്ലകൾ എന്നിവയാണ് എറണാകുളത്തിൻ്റെ അതിർത്തി ജില്ലകൾ ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ തീരഭൂമിയും കിഴക്ക് മലമ്പ്രദേശവുമാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ പെരിയാർ ജില്ലയുടെ വടക്ക് ഭാഗത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളെയും സ്പർശിക്കുന്നു മൂവാറ്റുപുഴയാറും ജില്ലയിലൂടെ കടന്നുപോകുന്നു മനുഷ്യനിർമിതവും അല്ലാത്തതുമായ നിരവധി ചെറുദ്വീപുകൾ ജില്ലയുടെ പടിഞ്ഞാറ് മേഖലയിലുണ്ട് വർഷത്തിൽ നൂറ്റിമുപ്പതിലേറെ ദിവസം മഴ ലഭിക്കുന്ന ഇവിടെ ശൈത്യകാലം ഒഴികെ മിക്കപ്പോഴും സാമാന്യം നല്ല നല്ല ചൂട് അനുഭവപ്പെടുന്നു പിന്നെ ഇന്നത്തെ കാലത്ത് പിന്നെ പറയാണെങ്കിൽ ചരിത്രകാര്യങ്ങള് പറയാണെങ്കിൽ കണയന്നൂർ കൊച്ചി കുന്നത്തുനാട് ആലുവ പാരൂർ താലൂക്കുകൾ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഏപ്രിൽ ഒന്നിന് എറണാകുളം ജില്ല നിലവിൽ വന്നു അപ്പോള് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ കേരളാ ഫൈന് ആര്ട്സ് ഹാളിൽ നടന്ന മണിക്കൂറോളം രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ പ്രവർത്തകർ പങ്കെടുത്ത ചർച്ച ജില്ലാരൂപീകരണത്തിന് നിർണായകമായി എറണാകുളം എന്ന പദത്തിൻ്റെ പദോൽപത്തി ക്ഷേത്രാധിഷ്ഠിതമോ പുരാണമോ ആയ ബന്ധപ്പെട്ടിരിക്കുന്നു കോമാട്ടിൽ അച്യുതമേനോൻ ഈ വാക്കിൻ്റെ ഉത്ഭവം ഇറങ്ങിയാൽ എന്ന ഒരുതരം ചേളിൽ നിന്നാണ് ചെന്നൈയില് ശിവനെ പണ്ടു വിളിച്ചിരുന്നത് ഏറനായർ എന്നാണ് കേരളത്തിലും ഇത് പിന്തുടരുകയും പിന്നീട് എറണാകുളം എന്നറിയപ്പെടുകയും ചെയ്തു എ ഡി പതിമൂന്ന് നാല്പത്തിരണ്ടിനും എ ഡി പതിമൂന്ന് നാല്പ്പത്തിയേഴിനും ഇടയിൽ കേരളതീരത്തുകൂടെ സഞ്ചരിച്ച എഭാനുബത്തൂത കൊച്ചിയെക്കുറിച്ച് യാദൃച്ഛികമായി ഒരു പരാമർശംപോലും നടത്തിയിട്ടില്ല കൊച്ച് ആൻഡ് ആഴി ചെറിയനദിമുഖം എന്നീ രണ്ട് പദങ്ങങ്ങളുടെ സംയോജനമാണ് കൊച്ചി എന്ന പേര് എ ഡി ആയിരത്തി നാനൂറ്റി അഞ്ചിൽ പെരുമ്പടപ്പ് പ്രവിശ്യ രാജാവ് അതിൻ്റെ തലസ്ഥാനം മഹോദയപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റുകയും കൊച്ചിയിലെ രാജാവായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു രാജ്യത്തിൻ്റെ അഭൂതപൂര്വമായ മഹത്വത്തിലേക്ക് വഴിയൊരുക്കി കൊച്ചി രാജാവും കോഴിക്കോട് സാമൂതിരിയും തമ്മിലുള്ള ശത്രുത മുതലെടുത്താണ് അപ്പോഴേക്കും കൊച്ചിയിലെത്തിയ പോർച്ചുഗിൽനിന്നുള്ള വ്യാപാരികൾ പോർച്ചുഗീസ് വ്യാപാരികൾക്ക് ഒരു സംഭരണശാല തുറക്കാനുള്ള അനുമതി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും രാജാവ് നൽകി കൊച്ചിയിൽ വ്യപാരം അഭിവൃദ്ധിപ്പെട്ടു താമസിയാതെ സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിൽ ഒരു യുദ്ധം നടന്നു തുടക്കത്തിൽ കൊച്ചി രാജാവ് പരാജയപ്പെട്ടെങ്കിലും പോർച്ചുഗലിൽ നിന്നുള്ള യുദ്ധക്കപ്പലിൻ്റെ സംയോജിതമായ സഹായത്തോടെ അദ്ദേഹം തൻ്റെ രാജ്യം തിരിച്ചുപിടിച്ചു ഒടുവിൽ കൊച്ചി രാജാവും പോർച്ചുഗീസ് വ്യാപാരികളും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ഡച്ചുകാരുടെ പിന്തുണയോടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്നിൽ കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരുത്തുന്നതിൽ രാജാവ് വിജയിക്കുകയും ചെയ്തു കൊച്ചി ഭരിച്ചിരുന്ന എല്ലാ രാജാക്കന്മാരിലും ശക്തൻ തമ്പുരാൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റിയഞ്ച് വരെ ഏറ്റവും ശക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് രാജ്യം വികസിച്ചു ചെയ്തമംഗലം ഗ്രാമത്തിൽപ്പെട്ട പാലയത്തച്ചന്മാരാണ് ഏകദേശം നൂറ്റമ്പത് വർഷത്തോളം കൊച്ചി രാജാക്കന്മാരുടെ മുഖ്യമന്ത്രിമാരായിരുന്നത് ആയിരത്തി എണ്ണൂറോടുകൂടി ബ്രിട്ടീഷുകാർ കൊച്ചിയുടെ ഭരണം ഏറ്റെടുക്കുകയും പിന്നിട് രാജാക്കന്മാർ ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാർക്ക് കപ്പം നൽകുകയും ചെയ്തു ഇനി ഉള്ളത് സെമിറ്റിക് മതങ്ങളുടെ വരവാണ് കൊച്ചിയുടെ സാംസ്കാരിക വ്യത്യസ്തകളിൽ ഒന്നാണ് വിവിധ വിശ്വാസങ്ങളിൽപ്പെട്ടവരുടെ യോജിപ്പുള്ള സഹവർത്തിത്വം ആണ് ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളോടൊപ്പം കൊച്ചിയുടെ പാരമ്പര്യം വളരെക്കാലമായി പങ്കിടുന്നു അവരിൽ ഭൂരിഭാഗവും ഇസ്രായേലിലേക്ക് പോയതിനാൽ കൊച്ചിയിലെ ജൂതജനസംഖ്യ വർഷങ്ങളായി ക്രമാനുഗതമായി കുറയുന്നു എ ഡി അമ്പത്തി രണ്ടില് സെന്റ് തോമസ് കൊടുങ്ങല്ലൂർ തുറമുഖത്ത് ഇറങ്ങിയെന്നും ഏഴു പള്ളികൾ സ്ഥാപിച്ചെന്നും പരക്കെ വിശ്വസിക്കപ്പെടുന്നു എ ഡി പതിനഞ്ച് അറുപത്തഞ്ചിനും എ ഡി പതിനാറ് പൂജ്യം ഒന്നിനുമിടയിൽ മട്ടാഞ്ചേരിയിൽ ഒരു യഹൂദ പട്ടണം സ്ഥാപിക്കപ്പെട്ടു അതിനായി അന്നത്തെ കൊച്ചി രാജാവ് ആയിരുന്ന കേശവരാമവർമ്മ എല്ലാ സൗകര്യങ്ങളും ചെയ്തു മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഇടപ്പള്ളി എന്നിവിടങ്ങളിലെ മസ്ജിദുകള് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഫോർട്ട് കൊച്ചിയില് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള കൽവത്തി മസ്ജിദ് കൊച്ചിയുമായി വ്യാപാരബന്ധം പുലർത്തിയിരുന്ന അറബികളാണ് നിർമിച്ചത് കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ആംഗ്ലോ ഇന്ത്യക്കാരും ജൈനരും സിക്കുകാരും ശക്തമായ സമുദായിക മനോഭാവത്തോടെ വളരെകാലം സമാധാനപരമായി ജീവിച്ചു ഇനി കം ടു ദ നേച്ചർ പ്രകൃതിയുമായി നമ്മള് പറയാണെങ്കിൽ പ്രധാന ഭൂപ്രദേശങ്ങളും ഉൾപ്രദേശങ്ങളും വ്യാപിച്ചുകിടക്കുന്ന സമ്പന്നമായ സസ്യജന്തുജാലങ്ങളാൽ ഈ ജില്ല സമ്പന്നമാണ് രണ്ട് കായലും മൂന്ന് പ്രധാന നദികളും എറണാകുളത്തിൻ്റെ കാർഷിക വ്യാവസായിക വ്യാപാര വികസനത്തിൽ നിർണായക പങ്കു വഹിച്ചിട്ടുണ്ട് സമീപവർഷങ്ങളിൽ ഗോശ്രീ വരാപ്പുഴ തുടങ്ങിയ കൂറ്റൻ മേൽപ്പാലങ്ങളുടെ നിർമാണം ജലഗതാഗതത്തിൻ്റെ പ്രാധാന്യം കുറച്ചെങ്കിലും ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളെ ഇത് ഇപ്പോഴും ആകർഷിക്കുന്നു ഈ വർഷങ്ങളിലെല്ലാം എറണാകുളം ജില്ലയ്ക്ക് കാലവർഷം ദയനീയമായിരുന്നില്ല ഇവിടെ കണ്ടൽക്കാടുകൾ ഏകദേശം നാനൂറ്റി അറുപത്തിയഞ്ച് ചതുരശ്ര കിലോ മീറ്റർ കോടനാട് കോതമംഗലം തുടങ്ങിയ താഴ്വര പ്രദേശങ്ങളിൽ താരതമ്യനേ സ്ഥിരതയുള്ള പരിസ്ഥിതിവ്യവസ്ഥയുണ്ട് നെല്ലിനും തെങ്ങിനും പുറമെ നാണ്യവിളകളും കൊച്ചിയില് ഉൽപാദിക്കപ്പെടുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപാദിപ്പിക്കുന്ന ജില്ലയാണ് എറണാകുളം ജില്ലയിലെ രണ്ട് പക്ഷിസങ്കേതങ്ങളായ തട്ടേക്കാടും മംഗളവനവും വംശനാശഭീഷണി നേരിടുന്ന പക്ഷികളുടെയും ആദിമചിലന്തികളുടെയും അഭയകേന്ദ്രമാണ് വളരെ ചുരുക്കി ഒരു വാക്കിൽ പറഞ്ഞാൽ കൊച്ചി എന്നു പറയുന്നത് അറബിക്കടലിൻ്റെ റാണി എന്നാണ് പറയുന്നത് നമുക്ക് പതിമൂന്ന് നഗര സഭകള് ആണുള്ളത് എജുക്കേഷൻ പറയാണെങ്കില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടെ നൂറുശതമാനം സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് എറണാകുളം ഇരുപത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള രാജ്യത്തെ ഏതൊരു നഗരത്തിലും ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് കൊച്ചിയിലാണ് സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൂറു ശതമാനം സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമാണ് പോത്താനിക്കാട് സാക്ഷരതാ പരിപാടി ഈ ജില്ലയിലാണ് എറണാകുളത്ത് മൂന്ന് പ്രമുഖ സർവകലാശാലകളുണ്ട് കലാധി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് സയൻസ് ഓഫ് സ്കൂൾ യൂണിവേഴ്സിറ്റി കൊച്ചിയിലെ അൻകർവ സർവകലാശാല സമുദ്ര പഠനം എന്നിവയിലെ ശ്രീ ശങ്കരാചാര്യ സർവകലാശാല സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസസ്ഥാപനങ്ങളുള്ളത് ജില്ലയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് അനുസരിച്ച് എറണാകുളത്ത് നാനൂറ്റി എഴുപത്തിയാറ് സമ്പൂർണ്ണ ഹൈ ടെക് സ്കൂളുകളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനേഴിൽ എറണാകുളം ജില്ലാ ഭരണകൂടം കുടിയേറ്റ കുട്ടികൾക്കു മലയാളവിദ്യാഭ്യാസം നൽകുന്നതിനായി പദ്ധതി ആരംഭിച്ചു ലോവർ പ്രൈമറി മുതൽ ഹൈ സ്കൂൾ വരെയുള്ള ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികള്ക്ക് ഇത് പിന്തുണച്ചു പിന്നെ പറയുകയാണെങ്കിൽ ഒത്തിരി തീർത്ഥാടന സ്ഥലങ്ങളും ആരാധാനലയങ്ങളൊക്കെ ഇപ്പോള് നമ്മുടെ കൊച്ചിയിലുണ്ട് കണ്ണമ്മാലിപ്പള്ളി മലയാറ്റൂർ പള്ളി സെന്റ് മേരീസ് ബസിലിക്ക എറണാകുളം സാന്റാ ക്രൂസ് ബസിലിക്ക ഫോർട്ട് കൊച്ചി അതുപോലെ തൃപ്പൂണിത്തുറ പൂർണത്രയീശ ക്ഷേത്രം എറണാകുളം എർണാകുളത്തപ്പൻ ക്ഷേത്രം പിന്നെ ചോറ്റാനിക്കര തിരുവൈരാണിക്കുളം പള്ളിപ്പാട്ട്ക്കാവ് ഭദ്രകാളിക്ഷേത്രം ആലുവ ആലുവ ശിവരാത്രി മണപ്പുറം കടുങ്ങല്ലുർ ക്ഷേത്രം ശ്രീ ശങ്കര സ്മാരകം ദക്ഷിണ മൂകാംബിക ക്ഷേത്രം അങ്ങനങ്ങനെ ഒട്ടനവധി ഹൈന്ദവക്ഷേത്രങ്ങളുണ്ട് പിന്നെ പള്ളിപ്പടി മഖാം പൊന്നുരുന്നി ഇടപ്പള്ളി മഖാം ലുലുവിന് സമീപം പനായിക്കുളം ബാപ്പുസ്ഥാൻ മഖാം അങ്ങനെ ഒത്തിരി പ്രധാപ്പെട്ട ഇസ്ലാമിക ആരാധാനയങ്ങളുണ്ട് ജൂതപ്പള്ളി മട്ടാഞ്ചേരി അതൊരു ജൂത ആരാധനയലങ്ങളാണ് പിന്നെ ഒത്തിരി പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങള് ഉണ്ട് എഫ് എസ് ടി തിരുവിതാംകൂർ ദിവാനായിരുന്ന സി പി രാമസാമി സ്വാമി അയ്യരുടെ നിർദ്ദേശാനുസരണം സ്വകാര്യ സംരംഭമായി പ്രവർത്തനം ആരംഭിച്ചതാണ് ആദ്യം സംസ്ഥാന പൊതുമേഖലയിലും പിന്നീട് കേന്ദ്ര പൊതുമേഖലയിലും ചേർക്കപ്പെട്ടു പിന്നെ നമുക്ക് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട് ബി പി സി എൽ ഭാരത പെട്രോളിയമുണ്ട് പിന്നെ ഇന്ത്യൻ പെട്രോളിയമുണ്ട് കൊച്ചിൻ റിഫൈനറി എറണാകുളത്ത് സ്ഥിതിചെയ്യുന്ന മറ്റൊരു വ്യവസായ സ്ഥാപനമാണ് പിന്നെ പറയാണെങ്കില് പ്രധാനപ്പെട്ട ആശുപത്രികളൊത്തിരി ഗവൺമെൻറ്റ് ആശുപത്രികളുണ്ട് ഒത്തിരി അഡ്വാൻസ്ഡ് ഹോസ്പിറ്റലുകളുണ്ട് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അപ്പോളോ ആശുപത്രി പിന്നെ മെഡിക്കൽ ട്രസ്റ്റ് ജനറൽ ആശുപത്രി എറണാകുളം ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജ് കളമശ്ശേരി ലോക്ഷോർ ആശുപത്രി ആസ്ട്ര മെഡിസിറ്റി ലിസി ഹോസ്പിറ്റൽ അങ്ങനെ ഒത്തിരി മോഡേൺ ഹൈ ടെക് ആയിട്ടുള്ള ഡെവലപ്പ്ഡ് ഹോസ്പിറ്റൽസുണ്ട് പിന്നെ പറയാണെങ്കില് അങ്ങനെ അങ്ങനെ എല്ലാത്തരത്തിലും വളരെ വികസനം ഉള്ള വെൽ ഡെവലപ്പ്ഡ് വെൽ എജുക്കേറ്റഡ് ഒത്തിരി ഭൂപ്രകൃതിയുമായിട്ടും സമ്പന്നമായ ഒരു ജില്ലയാണ് എറണാകുളം ജില്ല